ഇപ്പം നമുക്ക് ചുറ്റും കാണുന്ന സാങ്കേതികവിദ്യ അടിസ്ഥാന രൂപങ്ങള് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആയി ഫോൺ കമ്പ്യൂട്ടര് പിന്നെ ഇന്റര്നെറ്റ് മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് കാര്യം എടുത്താലും അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് നല്ലതുമുണ്ട് അഴുക്കുമുണ്ട് അല്ലേ അപ്പം നമുക്ക് ഇപ്പം വന്നിരിക്കുന്ന നമ്മുടെ ഈ അടി പ പുതിയ അടിസ്താ ഈ സാങ്കേതികവിദ്യകള് എന്നൊക്കെ പറഞ്ഞാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി അറിവ് ഗ കിട്ടി കിട്ടുന്ന കാര്യങ്ങളായിരുന്നു നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അറിവ് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നു വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പലതിനേയും എത്തിപ്പിടിക്കുവാനായിട്ട് സാധിക്കുന്നു അല്ലേ നമ്മൾ മാ പണ്ട് കാലത്ത് പോയി ചെയ്തുകൊണ്ടിരുന്ന മ് മണിക്കൂറ്കള് മെനക്കെട്ട് ചെയ്യുന്നത് അല്ലെങ്കില് ദിവസങ്ങള് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കും നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഏതാണ്ട് മിനിറ്റുകള്ക്ക് ശേഷം തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു പക്ഷേ അത് അറിവ് കൂടുതൽ ലഭിക്കുന്നു പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് ദോഷഫലങ്ങളും ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതം അതുകൊണ്ട് ഇങ്ങനെ സമയം ലാഭം കിട്ടി എളു മ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് എളുപ്പമായി തീരുന്നു അല്ലേ ഒരു ദിവസം കൊണ്ട് ചെയ് പണ്ടൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ വെറും മിനിറ്റുകള്ക്കുള്ളിൽ ചെയ്ത് തീര്ക്കാമെന്ന് പറയുമ്പം അത് നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കി തീര്ക്കുവല്ലേ ചെയ്യുന്നത് ആ അത് ഒരു കാര്യം ഉണ്ടായാൽ അപ്പം ഒരു ഫോണ് ഒരു കൊച്ചിന്റെ കയ്യിൽ കൊടുത്തു കൊടുത്താൽ അവൻ അതിനകത്ത് കയറി അവന് ആവശ്യമുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവന്റെ ജീവിതം എളുപ്പമായി തീർന്ന് അവന് അറിവ് ലഭിക്കുന്നു പക്ഷേ അതിന് ദോഷഫലങ്ങളും ഉണ്ട് അപ്പം ആ ദോഷഫലങ്ങളിലേക്കാണ് അവന് മ ഇത് ഇത് ഉപയോഗിക്കുന്നതെങ്കില് അവന്റെ ജീവിതത്തിൽ എളുപ്പമുള്ളതായി തീരുകയല്ല ചെയ്യുന്നത് മറിച്ച് അവന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി തീരുകയാണ് ഇത് ചെയ്യുന്നതല്ലേ അപ്പം അങ്ങനെ അവ അങ്ങനെ ഇതിലൂടെ രണ്ടു മ് കാര്യങ്ങളാണുള്ളത് ഇപ്പം കൂടുതലായിട്ട് എനിക്ക് പറയുവാണെങ്കിൽ നാം ഇന്ന് ജീവിക്കുന്ന ലോകത്ത് നമ്മുടെ ചുറ്റ്പാടുകൾ നമ്മൾ നോക്കുമ്പം നമുക്ക് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് നേടി എടുക്കുവാനായിട്ട് ഈ പുതിയ പുതിയ സാങ്കേതികവിദ്യകളിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തില് പകർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണെനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പം അപ്പം എന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പം ഞാൻ എന്തോരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ചും മ ദിവസങ്ങൾ ഒക്കെയും പോയിയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം എന്റെ വിരല്ത്തുമ്പിലൂടെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു അപ്പം അതെന്റെ ജീവിതത്തെ എളുപ്പമായിട്ട് തന്നെയല്ലേ ബാധിച്ചിരിക്കുന്നത് എളുപ്പം അത് എനിക്ക് എളുപ്പമായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വിദ്യകൾ ഇനിയും കൂടുതല് കൂടുതല് നമ്മൾ ഈ നമ്മുടെ ലോകത്ത് ഉണ്ടാകണം എന്നാണ് ഞാൻ പ്രാര്ത്ഥിക്കുന്നത് അപ്പം പുതിയ തലമുറ വരും തോറും ഇതിനൊക്കെ ഒരോ മ ഇന്നത്തെ ഇന്നിപ്പം ഉള്ള ഇന്നിപ്പം ഇതൊക്കെ സാങ്കേതികവിദ്യകളൊക്കെ പുതുതായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഉണ്ട് അപ്പം നമ്മുടെ അത് കണ്ട് നമ്മുടെ പുറകില് ജൂനിയർ ആയിട്ട് വളര്ന്ന് വരുന്ന ഒരു തലമുറ ഉണ്ട് ആ തലമുറകൾ വരുമ്പം ഇനിയും കൂടുതൽ ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇതിന് ഉണ്ടാകണം ഇനി എന്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നേരത്തെ ഉള്ളവർ ഇപ്പം നാ ആൻഡ്രോയിഡ് ഫോൺ ഒക്കെ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നോ ഇല്ല ഇപ്പം ഈ പുതിയ മ തലമുറയല്ലേ ഇപ്പം അതൊക്കെ അതിനൊക്കെ രൂപം കൊടുത്തത് അപ്പം അത് കണ്ട് വളരുന്ന ജൂനിയര് തലമുറ എന്ന് പറയുന്നത് അവര്ക്ക് വരുമ്പം ഇതിനേക്കാള് ഉപരിയായിട്ടുള്ള പലതുമായിരിക്കും അവര്ക്ക് കണ്ട് പിടിക്കുവാനായിട്ട് സാധിക്കുക അത് ലോകത്തിന് ഒത്തിരി നല്ലത് തന്നെയാണ് അല്ലേ ഒത്തിരി നല്ല കാര്യമാണ് ഇങ്ങനത്തെ ഉള്ള സാങ്കേതികവിദ്യയിലൂടെ നമ്മുടെ ലോകം നമ്മുടെ ജീവിതം തന്നെ ഒരു എളുപ്പമായിട്ട് തീര്ന്നിരിക്കുകയാണ് അതിലൂടെ